ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല്